എൽപിജി കണക്ഷൻ ഉപയോഗിക്കുന്നുണ്ട് നേരത്തെ എല്ലാം വിറകടുപ്പിലാണ് എല്ലാരും പാചകം ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോ നേരെ വ്യത്യസ്തമായിട്ട് ഇപ്പൊ ഗ്യാസ് സ്റ്റൌലേക്ക് ഒക്കെ ആയിട്ട് തുടങ്ങയിട്ടുണ്ട് ഇപ്പോൾ ഗാസിലേക്കൊക്കെ പാചകം ചെയ്യുമ്പോൾ സമയ ലാഭം ഉണ്ട് നമുക്ക് പെട്ടന്ന് പണിയൊക്കെ തീർത്ത് ഇറങ്ങാൻ പറ്റും ഇപ്പോൾ വിറക് ആണെങ്കിൽ എല്ലാം വിറക് കത്തിച്ച് ഇതൊക്കെ ആക്കണം കത്തിച്ച് മഴക്കാലം ഒക്കെ ആണെങ്കിൽ കത്തി പടിക്കും ഇല്ല അങ്ങിനെ ഒക്കെ വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പോ ഗാസിന് ആണെങ്കിൽ ദിനംപ്രതി പിന്നെ പൈസ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഓരോ ദിവസം ചെല്ലുംതോറും ഓരോരോ പൈസ ആണ് അപ്പോൾ കൂടുതല് ഇപ്പോൾ വിറകടുപ്പ് തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ അത്രേം പൈസ ഒക്കെ ലാഭിക്കുക ഒക്കെ ചെയ്യാം